എല്ലാ മനുഷ്യർക്കും തെറ്റു പറ്റിയ പോലെ എനിക്കും തെറ്റുപറ്റിയിട്ടുണ്ട് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പാചകം ചെയ്തു തുടങ്ങി പഠിക്കുന്ന സമയത്ത് നമ്മൾ പരീക്ഷിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പപ്പടം ചുടുക അതുപോലെതന്നെ ചായ ഉണ്ടാക്കുക മുട്ട ബുൾസൈ ഉണ്ടാക്കുക അല്ലേ മുട്ട പൊരിക്കുക അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ അതുകഴിഞ്ഞ് കുറച്ചും കൂടി ഒരു വലുതായി ഒരു കല്ല്യാണം കഴിക്കാൻ പ്രായത്തിലെത്തുമ്പോഴത്തേക്കാണല്ലോ നമ്മൾ പല പാചകങ്ങളും പഠിച്ചുവരുന്നത് അപ്പം അതുമായിട്ടു ബന്ധപ്പെട്ട് വീട്ടിൽ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ കോവിഡിൻ്റെ സമയത്തു ഞാൻ ചെയ്യുന്ന ആ ഒരു സമയത്താണെങ്കിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുകയുണ്ടായി നമ്മൾ യൂട്യൂബിൽ നോക്കിയാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങിയത് പക്ഷേ ഞാൻ എല്ലാ സാധനങ്ങളും ചെയ്തു വെച്ചു ചെയ്തു വെച്ചു കഴിഞ്ഞ് ഉപ്പിട്ടപ്പം കുറച്ച് കൂടിപ്പോയി അതായത് നമുക്ക് പഠിക്കുവാണെന്നു പറഞ്ഞാലും ഈ സ്പൂൺ കണക്കിനെക്കാളും നമുക്ക് ഏറ്റവും എളുപ്പമായി വരുന്നത് ഈ കൈ കണക്കുകളാണല്ലോ അപ്പം ഞാനിങ്ങനെ ഉപ്പെടുത്തിട്ടപ്പോഴത്തേക്ക് ഉപ്പ് കുറച്ച് അധികമായി കൂടിപ്പോയി കൂടിപ്പോയിട്ട് ക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ചിക്കൻ കറിയുടെ ടേസ്റ്റ് മൊത്തം പോയി നമുക്കാണെങ്കിൽ വായിൽ വെക്കാൻ കൊള്ളാത്ത രീതിയിലേക്ക് അതു മാറിയായിരുന്നു അന്നിട്ട് ഞാൻ അതു രുചിച്ചു നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ഉപ്പാണ് എ നമുക്ക് വീട്ടുകാർക്ക് ആണെങ്കിലും ആർക്കും വേറെ വരുന്നവർക്കാണു അതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല നമുക്കും കഴിക്കാൻ പറ്റത്തില്ല നമ്മളൊരു മൂന്നാല് കിലോ ചിക്കൻ വാങ്ങിച്ചത് ഉണ്ടാക്കിയതല്ലേ കഷ്ടപ്പെട്ട് അത്ര നേരത്തെ ഗ്യാസും പോയി പിന്നെ സാധനങ്ങളും പോയി നമ്മളുടെ നേരവും പോയി അങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് അത് കളയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ ഇങ്ങനെ ചോദിച്ചു അപ്പം എൻ്റെ പപ്പയുടെ അമ്മ പപ്പയുടെ അമ്മ വീട്ടിലുണ്ട് പപ്പയുടെ അമ്മയോടു ചോദിച്ചു ഈ ഉപ്പു കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്നുളള രീതിയിൽ ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് വലിയമ്മച്ചി പറഞ്ഞു ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് മുറിച്ച് ഒന്ന് പുഴുങ്ങിയിട്ട് അതാ ചിക്കൻ കറിയിലേക്ക് ഇട്ടിട്ട് ഒന്നു തെളപ്പി ഇച്ചിരി വെള്ളവും കൂടി ചേർത്തങ്ങ് തിളപ്പിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ആദ്യം ചെയ്തെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപ്പു കുറയാൻ വേണ്ടി കുറച്ച് തൈരൊക്കെ എടുത്തിട്ട് തൈരൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ഇട്ട് തിളപ്പിക്കാൻ വേണ്ടി നോക്കി ആ ചിക്കൻ കറി അപ്പം അത് കഴിഞ്ഞിട്ട് പി എൻ്റെ അമ്മച്ചി പറഞ്ഞതു പോലെ ഞാൻ ആ കിഴങ്ങു രണ്ടുമൂന്നു കിഴങ്ങ് എടുത്തു ഉരുള കിഴങ്ങ് എടുത്തു ആ കിഴങ്ങ് ഞാനാണെങ്കിൽ നടുവേ മുറിച്ചിട്ട് അതൊന്ന് ഇച്ചിരി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ അതാണെങ്കിൽ ഒരു കുക്കറിനകത്തിട്ട് ചെറുതായിട്ടൊന്നു വേവിച്ചെടുത്തു ഉടയുന്ന രീതിയിലല്ല അല്ലാണ്ട് ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഒന്ന് വേവിക്കാൻ തുടങ്ങി എന്നിട്ട് കുറച്ച് വെന്ത ആ സാധനം എടുത്തിട്ട് ഞാനാ ചിക്കൻ കറി ഉണ്ടാക്കിയ ആ പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ചു വെള്ളവും കൂടി ഒഴിച്ച് ഞാനത് മൂടി വെച്ചു അങ്ങനെ കുറച്ചുനേരം ഒരു അഞ്ച് അഞ്ചെട്ടു മിനിറ്റ് ആണെങ്കിലും ഞാനത് ചെറിയ തീയിൽ വെച്ചിട്ടൊന്നു വേവിച്ചു വേവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഉരുളക്കിഴങ്ങിലേക്ക് ആ ഉപ്പും മുളകും പിടിക്കുകയും ചെയ്തു ആ ഉപ്പ് കുറയുകയും ചെയ്തു പിന്നെ പോരാത്തതിന് കിഴങ്ങ് ഇട്ടതിൻറ്റേതായൊരു കൊഴുപ്പും അങ്ങനെയുള്ള സാധനം നമുക്ക് കിട്ടുകയും ചെയ്തു അങ്ങനെയാണ് ഞാൻ ഒരു ചിക്കൻ കറി വെച്ച് കൊളമായി ഉപ്പു കൂടിയപ്പോഴത്തേക്കും ചെയ്ത ഒരു സംഭവം എന്നു പറയുന്നത് അല്ലാണ്ട് കുറെ മണ്ടത്തരങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അതായത് ഇപ്പം ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കി ആണ് നമ്മൾ ഇടിയപ്പം കുഴയ്ക്കേണ്ടെ അതിനു പകരം പച്ച വെള്ളം കൊണ്ടു പോയി കൊ ഇട്ടിട്ട് അങ്ങനെ കുഴയ്ക്ക് അതായതു മാവു വാട്ടി കുഴക്കുക എന്നാണ് നമ്മുടെ നാട്ടിൽ പറയും അപ്പം ആ സംഭവം ചെയ്യാണ്ട് നമ്മൾ ഞാൻ നേരെ ചെയ്തതെന്നു പറഞ്ഞാൽ പച്ചവെള്ളം എടുത്തിട്ട് പച്ചവെള്ളം ഉപയോഗിച്ച് ഇടിയപ്പം ഇടിയപ്പത്തിൻ്റെ മാവിലേക്ക് ഒഴിച്ച് അങ്ങനെ അത് ഇത് ചെയ്യാൻ വേണ്ടി നോക്കി പക്ഷേ ചൂടുള്ള സാധനം വെച്ചത് ചെയ്തിട്ടല്ലേ അതു കാര്യമുള്ളൂ അപ്പം അങ്ങനെ മണ്ടത്തരം പറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് നമ്മൾ പിന്നെ അത് കളയുകയാണ് ചെയ്തത് ഞാൻ ആകപ്പാടെ ചെയ്തേ എനിക്ക് മണ്ടത്തരം പറ്റിയതിൽ ഞാൻ നേരെ ആക്കിയ കാര്യമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപ്പിട്ടിട്ടുള്ള സംഭവമാണ്